വാര്ത്ത മാധ്യമങ്ങളില് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി സംവാദമാണ് ഏതെങ്കിലുമൊരു വിഷയത്തെക്കുറിച്ച് പല വ്യക്തികള് പ്രത്യേകിച്ച് സമൂഹത്തില് ആ ഒരു വിഷയത്തെക്കുറിച്ച് അപഗ്രാഹം ഉള്ള വ്യക്തികള് ഒന്ന് ചേര്ന്നിരുന്നാല് അതിനെക്കുറിച്ച് സംവാദം നടത്തുകയും അതിന്റെ നല്ല വശങ്ങളും പോരായ്മകളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന പരിപാടി ഒരു സംഭവത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് ബോധ്യം മൂല്യങ്ങള് കിട്ടുവാന് സാധിക്കും സഹായിക്കും അതുപോലെ തന്നെ ഒരു വാര്ത്തയെക്കുറിച്ച് അല്ലെങ്കില് ഒരു സ കാര്യത്തെക്കുറിച്ചൊരു വിഷയത്തെക്കുറിച്ച് എങ്ങനെ സംസാരിക്കണമെന്നും അതിന്റെ രണ്ട് വശങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിരുന്നു കൊണ്ട് സംസാരിക്കണമെന്നുമൊക്കെ പഠിപ്പിക്കുന്നതിൽ ഈ സംവാദം പരിപാടികള് നമ്മളെ സഹായിക്കുന്നു പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങളെക്കുറിച്ച് സംവാദം നടത്തുന്ന പരിപാടികളാണ് കൂടുതലായിട്ടും ഇഷ്ടമുള്ളത് അത് ആ ഒരു സമൂഹത്തിന്റെ അന്നത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് കൂടുതല് മനസ്സിലാക്കിത്തരുവാന് നമ്മളെ സഹായിക്കുന്നതാണ്